നമ്മുടെ ജീവിതത്തിലെ മംഗളകരമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ തമ്പുരാൻ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായ കാര്യങ്ങൾ തന്നെയാണ് നാം ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്താൽ എന്നാലും എടുത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ജീവിതത്തിൽ വീടില്ലായിരുന്നപ്പോൾ എനിക്ക് ഒരു വീട് തമ്പുരാൻ്റെ കൃപ കൊണ്ട് കിട്ടി അത് എങ്ങനെയാണ് നാം ആ വീടിനെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തിയ വിശ്വാസം അനുസരിച്ചത് എങ്ങനെയാണ് നാം അത് തുടങ്ങിയത് എന്ന് ഞാൻ അച്ചനെ ചെന്ന് കണ്ടു അപ്പോൾ നമ്മുടെ ഈ നാട്ടിൻ പുറത്തെ വിശ്വാസം അനുസരിച്ചു കൊണ്ട് ഒരു വീട് പണി തുടങ്ങുമ്പോൾ ഇതിനെല്ലാം ഇവിടത്തെ ഫല നോട്ടക്കാർ അല്ലെങ്കിൽ ആസ്ഥാന നോട്ടക്കാർ അല്ലെങ്കിൽ മതാചാരപരമായ അല്ലെങ്കിൽ മറ്റ് മതാചാരമല്ലാതെ തന്നെ ഇവർ ഈ ആശാരിമാർ വന്നു കുറ്റി വയ്ക്കുക ഇതൊക്കെയാണ് പക്ഷെ ഞാൻ എൻ്റെ മംഗളകരമായൊരു കാര്യത്തിൽ തുടക്കം കുറിക്കുക എന്നു പറയുമ്പോൾ പള്ളിയിലെ വികാരി അച്ഛനെ കൊണ്ട് വന്നു ആ ആ സ്ഥാനം കാണുകയും അതുപോലെ തന്നെ ആ അച്ഛനെ കൊണ്ട് തന്നെ കല്ലിടിക്കുകയും അതിന് അടിയിൽ നമ്മുടെ തമ്പുരാൻ്റെ ഒരു ഒരു കുരിശു രൂപമൊക്കെ അടിസ്ഥാന പരമായി സ്ഥാപിച്ചു കൊണ്ടാണ് ആ ആദ്യ തുടക്കമായ മംഗളകർമ്മമായ കാര്യം നിർവഹിച്ചത് അതുപോലെ ജീവിതത്തിലും വളരെ പ്രതീക്ഷിക്കാതെ തന്നെ ആ വീടിൻ്റെ പണി അപ്പഴ് വളരെ പെട്ടെന്ന് തന്നെ തീരുകയും വളരെ അധികം ബാധ്യതകളൊന്നും ഇല്ലാതെ തന്നെ അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു അത് മംഗളകരമായ ഒരു തുടക്കം തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം അതും വളരെ മംഗളകരമായി തന്നെ നടത്തുവാൻ എനിക്ക് സാധിച്ചു ഞാൻ യാദൃച്ഛികമായിട്ടാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിവാഹങ്ങൾ നടത്തിയത് വളരെ അധികം മംഗളത്തിൻ്റെതായ മനഃസന്തോഷത്തിൻ്റെതായ ദിവസങ്ങളായിരുന്നു അത് പ്രതേകിച്ച് നല്ല രീതിയിൽ തമ്പുരാൻ വലിയ കൃപയും വലിയ ഭയങ്കരമായ സമ്പത്തുമൊന്നു അല്ലങ്കിലും ദൈവത്തെ ആശ്രയിക്കുന്ന രണ്ട് മക്കളെ തന്നുകൊണ്ട് സുഭിക്ഷമായി ജീവിക്കുവാനുള്ള അവസരമെനിക്ക് അതിലും വളരെ മംഗളകരമായി പങ്കെടുക്കുവാൻ സാധിച്ചു അതും സന്തോഷകരമാണ് അതുപോലെ തന്നെ ഒത്തിരി മംഗളകരമായ മുഹൂർത്തങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട് നമുക്ക് മറ്റുള്ളവർ അത് നമ്മുടെ അല്ലെങ്കിൽ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യമായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മംഗളകരമായ ഒരു മുഹൂർത്തം വിവാഹം മറ്റു വിവാഹങ്ങൾ സഹോദരങ്ങളുടെ വിവാഹങ്ങൾ സഹോദരി മക്കളുടെ വിവാഹങ്ങൾ അങ്ങനെ മംഗളകരമായ ഒത്തിരി ഒത്തിരി കാര്യങ്ങള് പങ്കെടുക്കുവാൻ എനിക്ക് അപ്പം ഇത് തുടങ്ങുമ്പോഴൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയാണ് എന്ന് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ തുടങ്ങുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു വിവാഹ കർമ്മത്തിൽ അത് വളരെ മംഗളകരമായൊരു കർമ്മം തന്നെയാണല്ലോ നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തെ തമ്പുരാൻ്റെ മുമ്പിൽ വച്ച് നമ്മുടെ നമ്മുടെ മകളായാലും മറ്റൊരാളുടെ വിവാഹം പങ്കെടുക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആ തമ്പുരാൻ മുപ്പ് അവയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അങ്ങനെ മംഗളകരമായ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരൊക്കെ സാധിച്ചിട്ടുണ്ട് മുഹൂർത്തം മംഗളകരമായ ചടങ്ങുകൾക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം നമ്മൾക്ക് തരുന്ന നമുക്ക് നമ്മുടെ ആശ്രയിക്കുന്ന ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് തുടങ്ങിയാൽ ഏത് കാര്യവും മംഗളമായി തീരാൻ സാധിക്കും അതിൽ യാതൊരുവിധമായ സംശയവുമില്ല നമ്മള് മറ്റ് നമ്മടെ കാര്യങ്ങൾ മാത്രം തന്നെ അല്ല മറ്റുള്ളവരെ കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അതിലും മംഗളങ്ങൾ മംഗളകരമായ കാര്യങ്ങളുണ്ട് വളരെ അധികം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിലൊക്കെ അഭിമാനവും സംതൃപ്തിയുമുണ്ട് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും മംഗളകരം എന്ന് നാം ബാഹ്യമായെങ്കിലും വിശ്വസിക്കുന്ന വിവാഹ ചടങ്ങുകൾ വീട് പാലുകാച്ചുകൾ മാമോദിസ പങ്കെടുക്കുന്ന ചടങ്ങുകൾ അതുപോലെ ആദ്യകുർബ്ബാന നമുക്കറിയാം തമ്പുരാനെ സ്വീകരിക്കുന്ന മംഗളകരമായ ഏറ്റവും ഒരു നല്ല മുഹൂർത്തമാണ് ആദ്യ കുർബ്ബാന കർത്താവിനെ ഒരു കുഞ്ഞ് ദ്യമായി സ്വീകരിക്കുന്ന ദിവസം പങ്കെടുക്കുക ഈ അതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതും മംഗളകരമായിട്ട് തമ്പുരാൻ്റെ മുമ്പേ കാഴ്ചവച്ച് പ്രാർത്ഥിക്കുക ആ കുഞ്ഞിനെ നീ നല്ല കുട്ടിയായ് വളർത്തണമേ എന്ന് അതൊക്കെ വളരെ അധികം സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുടെ മംഗളകരമായ ചെയ്വേനെടേയും മംഗളകരമായ കർമ്മത്തിൻ്റെയുമൊക്കെ തുടക്കത്തിൻ്റെ ഭാഗങ്ങളാണ് ഒത്തിരി ഒത്തിരി മംഗളകർമ്മങ്ങൾ നമ്മുടെ സഭയുടെ വലിയ നമ്മടെ സഭയുടെ നമ്മുടെ കത്തോലിക്ക സഭയുടെ ആയാലും മറ്റുള്ളവരുടെ ആയാലും ഒക്കെ പങ്കെടുക്കുവാൻ ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാൻ പല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ ഒത്തിരി നന്ദി പറയുകയാണ് അപ്പ ഈ ഏത് മംഗളകാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ചെയ്യേണ്ടതായ ചില കർമ്മ പദ്ധതികളുണ്ട് അത് നമ്മൾ മറ്റൊരാളെ മറ്റൊരുത്തനെ ആശ്രയിച്ചല്ല നമ്മുടെ ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ള രീതിയിൽ ആദ്യമായി ദൈവത്തിനെ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ തുണയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്ന തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഒരു എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് അന്ന് പള്ളിയിൽ ചെന്ന് കുർബ്ബാന കണ്ടു കർത്താവ് സമർപ്പിച്ച് കുർബാനയൊക്കെ കർത്താവിൻ്റെ തിരു ശരീരം രക്തമൊക്കെ ഭക്ഷിച്ച് ആ മംഗളകർമ്മത്തിലും എന്നെ സാക്ഷിയാക്കി തമ്പുരാനെ നടത്തണമേ മുന്നോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങുക എന്ന ഒരു പാരമ്പര്യവും ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത് ഈ മംഗളം എന്ന് പറയുമ്പോൾ അതിനാണ് മംഗളകർമ്മങ്ങൾ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ തുടങ്ങുവാൻ എന്ന് പറയുമ്പോൾ നമ്മുടേത് മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിലും നമുക്ക് മംഗളങ്ങൾ ഈ വിവാഹ വിമലങ്ങൾ നേരാറുണ്ട് ബാഹ്യമായ ഒരു മംഗളനേർച്ചയുള്ളൂ പക്ഷെ ആന്തരികമായിട്ടു പ്രാർത്ഥനാശംസകൾ നേർന്നു കൊണ്ടുള്ള മംഗളങ്ങളാണ് അല്ലെങ്കിൽ ദൈവത്തിൽ സമർപ്പിച്ചു കൊണ്ടുള്ള മംഗളാശംസകളാണ് വേണ്ടത് ഇതാണ് എനിക്ക് പറയുവാൻ ഉള്ളത്